എൻ്റെ ഗ്രാമത്തിൽ ആർക്കെങ്കിലും പാമ്പു കടിയേറ്റാൽ ആദ്യം തന്നെ വേണ്ട വൈദ്യ സഹായം തേടുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു പോണേന് മുന്നേ നമ്മൾ പ്രാഥമികമായി എന്തൊക്കെ സുശ്രൂഷ വേണമെന്ന് ആണോ അതൊക്കെ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിൻ്റെ സഹായം ഉപയോഗിച്ചോ ഞാൻ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നിട്ട് വണ്ടി ഏർപ്പാടാക്കി അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു പോകുന്നതാണ് വിഷം മുകളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ എന്തെങ്കിലും തുണി ഉപയോഗിച്ച് കെട്ടിവെക്കുന്നതാണ് എന്തെങ്കിലും നാട്ടു മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് പറ്റുന്ന എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഒക്കെ ചെയ്യുന്നതാണ്